ഒരു പ്രാവശ്യം ഊട്ടിയിൽ ടൂറിന് പോയപ്പോൾ നമ്മള് ഒര് പെട്ട് പോയിട്ടുണ്ട് ഭാഷ അറിയാണ്ട് അപ്പം അവര് ഉപയോഗിക്കുന്ന ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ് തമിഴ് കലർന്ന ഒരു ഭാഷയാണ് അപ്പോൾ തമിഴ് അത്ര വലിയ പിടുത്തമില്ലേങ്കിലും പോലും മലയാളത്തിൻ്റെ ഒര് ചെറിയൊരു മാറ്റവുള്ള ഭാഷയയായത് കൊണ്ട് കുറച്ചെല്ലാം നമ്മള് തമിഴ് അറിയുന്ന രീതിയില് സിനിമയെല്ലാം കണ്ടപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമ്മള് തമിഴ് കുറച്ചെല്ലാം അങ്ങോട്ടേക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ അറിയാതെ ഭാ ചില കാര്യങ്ങള് അറിയാത്ത കാര്യങ്ങള് നമ്മള് പറയേണ്ടി വരുമ്പോൾ നമ്മള് ആംഗ്യ ഭാക്ഷയാണ് ഫസ്റ്റ് ഉപയോഗിക്കുന്നത് ആംഗ്യ ഭാഷയിലൂടെയൊക്കെ നമുക്ക് സംസാരിക്കാതെ ഒരാൾക്ക് നമുക്ക് ആശയ വിനിമയം നടത്താനുള്ള ഒര് ഉപാധിയാണ് ആംഗ്യ ഭാഷ പിന്നെ തൊട്ട് കാണിച്ചിട്ടും പറഞ്ഞിട്ടും എല്ലാമാണ് ഓരോ കാര്യങ്ങളും നമ്മളവരിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ഭാഷയെന്ന ഒരു ഉപധിയില്ലാത്ത സമയത്ത് ജനങ്ങൾ മനുഷ്യര് ആശയങ്ങള് കൈമാറാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു ഉപാധിയാണ് ആംഗ്യ ഭാഷ ആംഗ്യ ഭാക്ഷയിലൂടെ തന്നെ നമ്മള് പല പല രീതിയിലും നമുക്ക് ആശയ വിനിമയം നടത്താൻ സാധിക്കുന്നതാണ്